ഇപ്പോൾ ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കൂടുതലായിട്ടും ഈ പെണ്ണുങ്ങൾ തമ്മിലാണ് കുടുതലായിട്ടും തർക്കങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുക അവർ എങ്ങനെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ലേശം പോങ്ങച്ചവും കാര്യങ്ങളും ഒക്കെ കൂടുതൽ ഉള്ളത് കൊണ്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് അതായത് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അവിടെപ്പോയി പറയുക അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെപ്പോയിട്ട് പറയുക അങ്ങനെയാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വെ ബാക്കിയുള്ള വീട്ടുകാരുമായിട്ട് ചെറുതായിട്ട് ഒരു കച്ചറ ഉണ്ടായിരുന്നു ഇവിടെ അടുത്ത് അപ്പോൾ അതെങ്ങനെയാണ് നിന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയുണ്ടായ സമയത്ത് പല ആൾക്കാരും വന്ന് ചിലർ അവരെ മൂപ്പിച്ചിട്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടും തല്ലാനുള്ള സ്ഥിതി വരെ ആയിട്ടുണ്ടായിരുന്നു അപ്പം അത് ഒരു വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നി അപ്പം ഞാൻ എന്ത് ചെയ്തു എൻ്റെ രീതിയിൽ ഞാൻ അവരോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ ഒരു വിധത്തിൽ എങ്ങനെയൊക്കെയോ പറഞ്ഞ് റെഡി ആക്കിയിട്ട് വേണം അവരെ അടിയിൽ നിന്ന് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പരമാവധി കുറേ നോക്കി അപ്പം എന്നെയും ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കൊ കുറച്ച് പേർ വന്നിട്ട് അവരെ പിടിച്ച് മാറ്റാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു പിന്നെ അവ അവർ അവിടെ പെണ്ണുങ്ങൾ തമ്മിലുള്ള അടി ആയതിൽ പിന്നെ നോക്കുമ്പം ഉണ്ട് ആണുങ്ങളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒച്ചപ്പാടായി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായി പിന്നെ മെല്ലെ മെല്ലെ പിടിച്ച് അവരെ മാറ്റി നല്ല രീതിയിൽ പറഞ്ഞ് റെഡി ആക്കിയിട്ടൊക്കെയാണ് അവരെ ആ തർക്കത്തിൽ നിന്ന് ഒഴിവാക്കിയത്